രണ്ട് മൂന്ന് രണ്ടായിരം ഒൻപത് പത്ത് രണ്ടായിരത്തി പ നാല് ഏഴ് ര പന്ത്രണ്ട് രണ്ടായിരത്തി പത്ത് ഇരുപത്തി നാല് ആറ് രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത്തൊൻപത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട്